ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാടുണ്ട് കേരളത്തിൽ തന്നെ ഞങ്ങൾ ഇഷ്ടംപോലെ ഞങ്ങൾ കൂട്ടുകാരായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് തൃശൂർ ആതിരപ്പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങൾ പിന്നെ ബാംഗ്ലൂർ കർണാടകയിൽ കുറെ സ്ഥലങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോയിരിക്കുന്നത് ഹൈദരാബാദ് പോയിട്ടുണ്ട് റാംജിറാവ് ഫിലിം സിറ്റി അങ്ങനെ ഓരോ ഷൂട്ടിങ്ങിനും കാര്യത്തിനും അങ്ങനെ വീഡിയോ വർക്കിനും അങ്ങനെ എല്ലാത്തിനും പോയിട്ടുണ്ട് വെഡിങ് വീഡിയോ വർക്ക് മാമോതീസ അങ്ങനുള്ള പരിപാടിക്ക് ഒക്കെ പോയിട്ടുണ്ട് പിന്നെ കേരളത്തിൽ തന്നെ പല പല സ്ഥലങ്ങൾ ഇന്ത്യയിൽ താജ്മഹൽ അവിടെ പോയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വീഡിയോഗ്രഫിക്ക് വേണ്ടി പോയിട്ടുണ്ട് താജ് മഹലിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും എല്ലാം ഫോട്ടോ അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ നാട്ടിൻ പ്രദേശം നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ നാട്ടിൽ തന്നെ കുറെ സ്ഥലങ്ങളിൽ അമ്പലങ്ങളിലും പള്ളികളിലും അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ അമ്പലങ്ങളിലെ കുളങ്ങളുടെ അവിടെ ഓരോ സ്ഥലങ്ങൾ റോഡിൽ അങ്ങനെ കുറെ സ്ഥലങ്ങൾ കണ്ട് പിടിച്ച് പിന്നെ മെയിൻ റോഡ് സിറ്റീസ് അങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന ബൈപാസ് അങ്ങനെയുള്ള റോഡുകളിൽ ഒക്കെ പോയി ഫോട്ടോ എടുക്കാറുണ്ട് നമ്മൾ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഫോട്ടോ എടുക്കാറാണ് സാധാരണ പതിവ് ഇന്ത്യയുടെ വെളിയിൽ അങ്ങനെ പോയിട്ടില്ല ഇന്ത്യക്കകത്തും കേരളത്തിനകത്തും ഒരുപാട് പോയിട്ടുണ്ട് പിന്നെ ടൂർ ഒക്കെ പോകാൻ നേരത്ത് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ക്യാമറ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അവിടുന്ന് തന്നെ ടൂർ പോകുമ്പോൾ ക്യാമറ എടുക്കും വയനാട് മൈസൂർ ഊട്ടി അങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയതിന് അവിടുന്ന് ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല മെമ്മറീസ് ആയിട്ടിപ്പോളും ക്യാപ്ചർ ചെയ്ത് കൈയ്യിൽ സൂക്ഷിക്കുന്നുണ്ട്